പാചകത്തിനായി ഞാൻ പലതരം പാത്രങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കാറുണ്ട് സ്റ്റീൽ പാത്രങ്ങളുണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ട് മൺചട്ടിയുണ്ട് അലൂമിനിയം പാത്രങ്ങളുണ്ട് ഓരോന്നിനും ഓരോ ഉപയോഗമാണ് ദോശ തന്നെ നമുക്ക് ചുടാൻ വേണ്ടി രണ്ട് പാത്രങ്ങളുണ്ട് ദോശക്കല്ല് ഇരുമ്പിലുള്ളതുമുണ്ട് അല്ലാതെ നോൺ സ്റ്റിക്കിലുള്ളതുമുണ്ട് നോൺ സ്റ്റിക്ക് ആവുമ്പോള് നമുക്കെന്താ എണ്ണയുടെ ആവശ്യം വരത്തില്ല മറ്റേതാവുമ്പോള് നമ്മൾ എണ്ണ തേച്ച് വേണം ദോശ ചുടാൻ അങ്ങനെ നമുക്ക് എണ്ണ ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നോൺ സ്റ്റിക്കിൽ പാചകം ചെയ്യുമ്പോൾ കറികളോ അങ്ങനെ വല്ലതും പാചകം ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും തടി കൊണ്ടുള്ള സ്പൂണുകളാണ് ഉപയോഗിക്കാറ് സ്റ്റീൽ സ്പൂണുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള കോട്ടിങ് ഇളകിവരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ തടിയുള്ള സ്പൂണുകളാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാറ് ഇങ്ങനെ പലതരം സാധനങ്ങൾ നമുക്ക് ഇപ്പോള് കിട്ടുന്നുണ്ട് നമുക്ക് ചൂടാക്കാൻ വേണ്ടി ഇപ്പോള് എന്താ ഓവനുണ്ട് പിന്നെ എണ്ണയൊന്നുമില്ലാതെ ഫ്രൈ ചെയ്തെടുക്കാൻ എയർ ഫ്രൈയറുണ്ട് വെള്ളം ചൂടാക്കാനായിട്ട് കെറ്റിലുണ്ട് ബ്രഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രെഡ് ഒരു മെഷീനുണ്ട് പിന്നെ അരയ്ക്കാനാണെങ്കില് പണ്ടൊക്കെ അരയ്ക്കുന്ന ഒരു കല്ലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോള് നമ്മളുടെ വീട്ടില് ഉപയോഗിക്കുന്നത് മിക്സി ഗ്രൈന്ഡർ അങ്ങനെയുള്ള സാധനങ്ങളാണ് പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗ്യാസടുപ്പുകളാണ് വിറകടുപ്പുകളും ഇൻഡക്ഷൻ കുക്കറും എല്ലാം ഇക്കാലത്തുണ്ട് വിറകടുപ്പുകളാവുമ്പോള് നമുക്ക് വിറകിൻ്റെ ആവശ്യമുണ്ട് പിന്നെ എൻ്റെ വീട്ടിലുപയോഗിക്കുന്നത് ഗ്യാസടുപ്പുകളാണ് അങ്ങനെ ഓരോന്നിനും ഓരോ ഉപയോഗമുണ്ട് പിന്നെ പലതരം സാധനങ്ങൾ നമ്മൾ പല പാചകത്തിനായി ഉപയോഗിക്കുന്നുണ്ട് മൺചട്ടി ആവട്ടെ ആ നമ്മൾ ചിക്കൻ കറിയോ മീൻ കറിയോ അതിനകത്ത് വെയ്ക്കുമ്പോള് അതിനകത്തുള്ള ടേസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ എൻ്റെ വീട്ടിലെ കറികൾ മിക്കതും മൺചട്ടിയിലാണ് വെക്കാറ് അലൂമിനിയം പാത്രത്തിൽ നമ്മൾ ആഹാരങ്ങൾ വയ്ക്കുമെങ്കിലും അതുടനെ തന്നെ വേറെ പാത്രത്തിലോട്ട് മാറ്റാറുണ്ട് കാരണം അതിനകത്ത് റിയാക്ഷൻസൊക്കെ നടക്കും